ഡെങ്കിപ്പനി മലേറിയ തുടങ്ങിയ കൊതുക് പരത്തുന്ന രോഗങ്ങൾ പ്രതിരോധിക്കാൻ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാം ഡെങ്കിപ്പനി മലേറിയ മാത്രമല്ല കൊതുകുകൾ പരത്തുന്നത് കുറെ അസുഖങ്ങളതു പോലെ കൊതുകുകൾ മന്ത് രോഗമൊക്കെ കൊതുകുകൾ കാരണം തന്നെയാണ് കൊതുകൾ എന്ന് തന്നെ പറയുമ്പോൾ അവർ പല കൂട്ടങ്ങളുണ്ട് ഒരു കൂട്ടത്തിന് ഒരു പേര് വച്ച് വർണ്ണിക്കും അതുപോലെ തന്നെ മറ്റൊരു കൂട്ടത്തിന് മറ്റൊരു പേര് വച്ച് നമ്മൾ വർണ്ണിക്കും പക്ഷെ ഇങ്ങനെ ഡെങ്കിപ്പനി പരത്തുന്നത് ഒരു തരം കൊതുകുകൾ മലേറിയ പരത്തുന്നത് വേറെ ഒരു തരം കൊതുകുകൾ മന്ത് രോഗം പരത്തുന്ന മറ്റൊരു തരം കൊതുകുകൾ ഈ ഓരോ കൊതുകുകൾക്കും ഓരോ ഓരോ രാസ വസ്തുക്കളാണ് അതിൻ്റെ ഉള്ളിലുള്ളത് അത് നമ്മുടെ ബോഡിയിലേക്ക് ഇറങ്ങിച്ചെന്ന് പല അസുഖങ്ങൾ രൂപപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മളുടെ അശ്രദ്ധ മൂലം തന്നെയാണ് പല കൊതുകളുടെ രോഗവും പടർന്ന് കൊണ്ടിരിക്കുന്നത് അപ്പം ഏറ്റവും വലിയ അശ്രദ്ധ ചെറിയ രീതിയിലുള്ള കാര്യങ്ങൾ എന്ന് വച്ചാൽ ഒരു ചെറിയ മൺചട്ടി മൺചട്ടിയിൽ കുറച്ച് വെള്ളം തങ്ങിക്കിടക്കുന്നത് കൊണ്ട് അതിൽ കൊതുകുകൾ വന്ന് പെറ്റ് പെരുകി അത് അതിൻ്റെ കുട്ടികളായി അപ്പം അത് അതിൽ അതിൽ അത് മൂലം രോഗങ്ങൾ പടരാം അപ്പം നമ്മളുടെ വീടുകളിൽ ഒന്ന് ചുറ്റും നടന്നു നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും പല ചെടിച്ചട്ടിയിലും പല ചെറിയ ചിരട്ടകളിലും ചെറിയ പാത്രങ്ങളൊക്കെ വെള്ളം കെട്ടി കിടക്കുന്നുണ്ട് നമ്മൾ ഈ കാണുന്ന പാത്രങ്ങളിലെ വെള്ളമൊക്കെ ഒഴിച്ച് കളഞ്ഞാൽ ഒരു ചെടിയിലാണ് ചെടിക്ക് വേണ്ടി ഒഴിച്ച് കളഞ്ഞാൽ തന്നെ ഈ കൊതുകുകൾ പെറ്റ് പെരുകുന്ന നമുക്ക് അവിടെ കുറയ്ക്കാം അത് അതുപോലെ അതുപോലത്തെ ചെറിയ കാര്യങ്ങൾ തന്നെ നമുക്ക് ഇപ്പോൾ ചെയ്യാവുന്നതേ ഉള്ളു അതുപോലെ തന്നെ ഓടോമോസ് ഓടോമോസ് ഉപയോഗിക്കുക അത് അതൊരു മരുന്നാണ് നമ്മളുടെ ശരീരത്തിൽ കൊതുകുകൾ കടിക്കാതിരിക്കാനുള്ള ഒരു മരുന്നാണ് ഈ ഓടോമോസ് എന്ന് പറയുന്നത് അങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിക്കാം അതുപോലെ തന്നെ എന്താണ് നമ്മൾ നല്ല ഭക്ഷണ വസ്തുക്കൾ അസുഖങ്ങൾ വരാത്ത രീതീയിലുള്ള നല്ല ഭക്ഷണ വസ്തുക്കൽ കഴിക്കാൻ അപ്പം അങ്ങനെ നമ്മൾ നല്ല രീതിയിലുള്ള രീതികൾ ഏറ്റെടുത്താൽ തന്നെ നമുക്ക് കൊതുക്കൾ കാരണം വരുന്ന രോഗങ്ങൾ ഏറ്റവും വേഗതയിൽ നമുക്ക് കുറയ്ക്കാവുന്നത് തന്നേ ഉള്ളു